ആ പറഞ്ഞോളൂ മാഡം ആ ഓക്കേ മാഡം മനസ്സിലായി നമ്മളിപ്പോൾ വയനാട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഓപ്പൺ ആണ് നമുക്കിപ്പോൾ വരുന്നത് കുറുമ്പാലക്കോട്ട വരുന്നുണ്ട് ചെ പിന്നെ ചെമ്പ്ര പീക്ക് വരുന്നുണ്ട് പക്ഷിപാതാളം അവൈലബിൾ ആണ് പിന്നെ എടയ്ക്കൽ കേവ് ഈ സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് ഇല്ല മാഡം ഈ പക്ഷിപാതാളം ഒക്കെ കയറി കഴിയണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു ദിവസം മൊത്തം വേണ്ടിവരും ആ ഓക്കേ അതെ അതെ നമുക്കിപ്പോൾ അതിനുവേണ്ട റിസോർട്ടും കാര്യങ്ങളും റൂംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് മാഡം ആ അതൊക്കെ നമ്മൾ റെഡി ആക്കി തരാം അതിപ്പോൾ നമുക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വയനാട്ടിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഓപ്പൺ വന്ന് കഴിയുമ്പോൾ തന്നെ ആദ്യം കാണാൻ പറ്റുന്നത് നമുക്ക് ലക്കിടിയിലെ വ്യൂ വ്യൂ പോയിന്റ് ആണ് മാഡം ആ അവിടുന്നാണ് നമ്മൾ ഫസ്റ്റ് വയനാട്ടിലെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്നാണ് അതുകഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഡയറക്ട് മേപ്പാടി പോവാം മേപ്പാടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്പ്ര പീക്ക് ആ മേപ്പാടി അവിടെ ചെമ്പ്ര പീക്ക് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഡത്തിന് ആ എങ്ങനെയാണ് മാഡം അവിടെ നമുക്ക് മോണിംഗ് പോവുകയാണെങ്കിൽ ഒരു ഉച്ച ആവുമ്പോഴത്തേക്കും ഇറങ്ങി വരാം ഉണ്ടാവില്ല നമ്മൾ നടന്നു തന്നെ കയറണം അവിടെ മാഡം ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ഹാട്ടിൻ്റെ ഷേപ്പിൽ ഉള്ള ലേക്കും കാര്യങ്ങളോക്കെ വരുന്നത്

ആ അത് തന്നെ ആ ഓക്കേ ആ പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ പോകാം എടയ്ക്കൽ അമ്പലവയൽ അങ്ങോട്ട് ഭാഗങ്ങളിലേക്ക് പോകാം ആ കയറാം ഇല്ല കുഴപ്പം ഉണ്ടാവില്ല ഇല്ലില്ല പിന്നെ നമുക്ക് കുറുമ്പാലക്കോട്ട വേണമെങ്കിൽ പോവാം ആ അത് മോണിംഗ് കയറേണ്ടത് മോണിംഗ് തന്നെ അതെ രാവിലെ തന്നെ വെളുപ്പിന് കയറണം എങ്കിലേ നമുക്ക് അവിടെ ചെന്ന് കറക്റ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ

ആ ഓക്കേ

മാഡം ഒരു രണ്ടുദിവസം മുമ്പ് വിളിക്കുവാണെങ്കിൽ നമ്മളെത്ര പേർ ആളുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് റൂം കാര്യങ്ങളൊക്കെ അവൈ ഇതാക്കി തരാം പത്ത് പേരല്ലെ ആ ഓക്കേ മാഡം വരുന്നതിനൊരു രണ്ട് ദിവസം മുമ്പ് കൺഫോം പറയുകയാണെങ്കിൽ ഞങ്ങൾ റൂംസ് ഒക്കെ ബുക്ക് ചെയ്തു വച്ചേക്കാം ആ ഓക്കേ ആ ഓക്കേ മാഡം ഓക്കേ താങ്ക് യൂ മാം